കോവിഡ്സമയത്ത് പഠിക്കാൻ ശാസ്ത്രവും സാങ്കേതികവിദ്യയും നല്ല രീതിക്ക് തന്നെ ആളുൾക്ക് സഹായകമായ ഒന്ന് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരുപാട് പേർ ഒരുപാട് പേർ ബുദ്ധിമുട്ടിയ ഒരു സമയമാണ് കോവിഡ്സമയം ഈ സമയത്ത് നമ്മൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല നമ്മൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല നമ്മുടേതായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളിലേർപ്പെടുന്ന ഒരു സമയം സ്വയം നമ്മൾ വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു സമയമായിരുന്നു കോവിഡ്സമയം ഈ സമയത്ത് ശാസ്ത്രം നല്ല രീതിക്ക് തന്നെ നമ്മൾക്ക് ഒരു കൈ മുതൽ തന്നെയായിരുന്നു സാങ്കേതികവിദ്യകളും അങ്ങനെ തന്നെയായിരുന്നു കാരണം എന്താണ് എന്നുവച്ചാല് കുട്ടികളെ തന്നെ ആദ്യം നമുക്ക് പറയാം കുട്ടികൾക്ക് കൊച്ചു കുട്ടികള് മുതൽ കോളേജില് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇതുമില്ല സ്കൂളിൽ പോവാൻ പറ്റാത്ത ഒരു സാഹചര്യം ആ സമയത്ത് സാങ്കേതികവിദ്യ ഫോൺ ഉപയോഗിച്ചാണ് അവര് പഠിച്ചതും അതെല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കുന്നതും അവരുടെ എക്സാം ടൈംടേബിൾസ് അസൈമെന്റ്സ് പ്രോജക്ട് വർക്ക് ഇതെല്ലാം അവര് സബ്മിറ്റ് ചെയ്തത് ഫോൺ വഴിയാണ് രണ്ടാമത്തെ കാര്യം ജോലിക്കാര് അവരും ഈ സമയത്ത് നല്ല രീതിക്ക് ടെൻഷനും വിഷമവും കാര്യങ്ങളും എല്ലാ അനുഭവിച്ച ഒരു സമയമാണ് അവരുടെ ഓരോ ആൾക്കാരും ചെയ്യുന്ന ജോലിക്ക് അവര് ആത്മാർത്ഥായിട്ട് ചെയ്യുന്ന ഓരോ ജോലിക്കും അവർക്ക് ഒരു ഇത് കിട്ടണം മ് എങ്കിൽ അവരെന്ത് കാര്യങ്ങളാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടണമെങ്കിൽ അതിനും അവർക്ക് എന്താണ് ഇപ്പോൾ ഒരു ദൂരെയിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മള് ഇപ്പോഴത്തെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ശരിതന്നെയാണ് പക്ഷേ ഈ കോവിഡ് സമയത്ത് നമ്മള് അനുഭവിച്ച ബുദ്ധിമുട്ട് വളരെ വലുതാണ് പിന്നെ ഡിജിറ്റൽ പഠനത്തെ കുറിച്ച് അറിയാമോ എന്നൊരു ഇതില് അത് എന്താണെന്ന് വെച്ചാൽ അറിയാം നല്ല രീതിക്ക് തന്നെ അറിയാം ഈ വന്ന കാലത്ത് ഡിജിറ്റൽ പഠനം കുട്ടികൾക്ക് വളരെ വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണ് അത് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ കൂടുതലും കൊറോണ സമയത്താണ് കൂടിയത് കാരണം കൊച്ചുമക്കള് പുതിയ ക്ലാസ്സിലോട്ട് പോവാനുള്ള മക്കള് അല്ലെങ്കിൽ ഓരോ ക്ലാസും കഴിഞ്ഞ് പഠി പഠിചും പഠിത്തം മുകളിലോട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് എന്താണ് ഈ കോവിഡ് സമയത്ത് ബുദ്ധിമുട്ട് നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ സ്കൂള് നമുക്കിനി കാണാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ഒരു അവർക്ക് തന്നെ ഒരു മോട്ടിവേഷൻ അത് ഫ്രണ്ട്സിനെ ഒക്കെ കാണാമോ അതിനെപ്പറ്റി ഒക്കെ ഉള്ള ഒരു ഇത് നമ്മൾക്ക് മാറ്റി തന്നത് ഇപ്പൾത്തെ ഡിജിറ്റൽ വർക്ക് തന്നെയാണ് കാരണം ഇപ്പോൾ കൊച്ചുമക്കള് അവർക്ക് പഠിക്കാൻ ഉള്ള ഓരോ കാര്യങ്ങൾ അക്ഷരങ്ങളായാലും അവർക്ക് വായിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും എല്ലാം സ്കൂളിൽ പോയാൽ നമുക്ക് ഇതൊക്കെ നിസാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ ഓരോ കുട്ടികളെ ടീച്ചേഴ്സ് വിളിച്ചിരുത്തി ഓരോ കാര്യങ്ങള് പറഞ്ഞ് എഴുതി പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ അവർക്ക് എന്താണ് നല്ല രീതിക്ക് അത് മനസ്സിലാവും ഡിജിറ്റൽ വഴിയായിട്ട് എന്താണ് ഫോൺ എടുക്കുക അവർക്ക് അവരുടെ ഫ്രണ്ടിൽ വയ്ക്കുക ടീച്ചർ കുറെ മക്കളെ വീഡിയോ കോളായിട്ടു കോൺഫ്രൻസ് കോളായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക അതിനകത്ത് ടീച്ചർ ഇതാണ് ഇന്ന കാര്യം എന്ന് പറയുക മക്കൾ അതു മാത്രമെ മനസ്സിലാക്കുന്നുള്ളൂ പക്ഷേ കോവിഡ് തുടക്കങ്ങളൊക്കെ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് മാറി കാരണം പിന്നെ അത് ഗ്രൂപ്പ് കോൾസായി എല്ലാവരും ചേർന്നിരുന്ന് ഉള്ള പഠിത്തങ്ങളായി അങ്ങനെയുള്ള കാര്യങ്ങളായി പിന്നെ ഇതിന്റെ ഗുണവും ദോഷവും എന്നുവച്ചാല് ഡിജിറ്റൽ പഠനത്തെക്കുറിച്ച് ഗുണങ്ങള് ഒരുപാടുണ്ട് ഒരുപാട് ജോലിക്കാർക്ക് അവർക്കൊരുപാട് പ്രയോജനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഡി ഡിജിറ്റൽ കാര്യം കാരണം അവരുടെ വർക്കുകള് അവരുടെ പ്രോജക്ടുകള് അവരുടെ ഇന്റർവ്യൂസ് അവരുടെ ഓരോ പ്രോജക്ട് സബ്മിറ്റേഷന് ഇതെല്ലാം അവര് എന്താണ് കംപ്ലീറ്റെയ്തത് ഈ ഡിജിറ്റൽ വഴിയാണ് സ്കൂൾ കുട്ടികൾക്ക് എക്സാംസ് പ്രോജക്ട് വർക്സ് അസൈമെന്റ്സ് ടൈംടേബിൾസ് ഗ്രൂപ്പ് കോൾസ് ഹോം വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർക്കെന്താണ് നല്ല രീതിക്ക് തന്നെ ഓരോ ക്ലാസിലും ഇപ്പം കഴി ഇന്ന ഇ ഇത്രമത്തെ ക്ലാസിൽ പഠിക്കുന്ന കുട്ടിക്ക് അടുത്ത പ്രാവശ്യം ഉള്ള ഒരു ചെറിയ ബേസ് എങ്കിലും അവർക്ക് ഈ ക്ലാസിൽ കിട്ടുകയില്ലേ അതൊക്കെ നമുക്ക് ഡിജിറ്റൽ വഴി നമുക്ക് നല്ല രീതിയിൽ കിട്ടും പിന്നെ ഇതിന് ദോഷവും ഉണ്ട് ഇപ്പോഴുള്ള തലമുറയിലെ കുട്ടികൾക്ക് ഫോൺ ഒരു മെയിൻ ഘടകമാണ് അവർക്ക് ഫോണില്ലാതെ പറ്റില്ല ഫുഡ് കഴിക്കാന് അവർക്ക് ഒന്ന് നടക്കാന് ഇരിക്കാന് ചുമ്മാ റസ്റ്റ് എടുക്കാൻ നേരത്ത് ഫോൺ ഉറങ്ങാൻ നേരത്ത് ഫോൺ ഈ വക തലമുറയിലെ കൊച്ചുമക്കളെ ഈയൊരു കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റായത് കുട്ടികൾക്ക് മാത്രല്ല മുതിർന്നവർക്കും അങ്ങനെയാണ് ഈ കൊറോണ സമയത്ത് കുറെ പേര് വീട്ടിൽ തനിച്ചിരുന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടവര് ജോലിക്ക് പോവാൻ പറ്റാത്തവർക്കൊക്കെ ആകെ ആശ്രയം അവരുടെ ഫോൺ ആണ് അവര് ഫോണില് നോക്കി കളിച്ച് ചിരിച്ച് ഓരോ മെസ്സേജസ് അയച്ച് ഓരോ വീഡിയോസ് കണ്ട് സിനിമ കണ്ട് അവരുടെ ഓരോ ദിവസങ്ങള് അവര് തള്ളി നീക്കും പക്ഷേ അവരെ ചിന്തിക്കാത്ത ഒരു കാര്യം ഇത് നമുക്ക് ദോഷമാണ് ഒരു വ്യക്തി ഫോൺ ഇങ്ങനെ അഡിക്റ്റാവുമ്പോൾ അവർക്ക് പല പല അസുഖങ്ങൾ കാഴ്ച ശ ഇതുവരും നമ്മള് ഹെഡ്ഫോൺ വെച്ചാണ് കേൾക്കണതെങ്കിൽ അതിന്റെ വോയിസിങ്ങിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ടാകും അങ്ങനെ പല പല പ്രശ്നങ്ങള് ഇത് നേരിടുന്ന ദോഷങ്ങള് ഇഷ്ടം പോലെ ഉണ്ട് അത് കുട്ടികളും മാത്രല്ല മുതിർന്നവരും അങ്ങനെ തന്നെ പ്രായമുള്ളവരും ചെറുപ്പക്കാരും കൊച്ചുമക്കള് ഇപ്പം കൊച്ചുമക്കള് ഒരു ഒരു വയസൊക്കെ ആവുന്ന കുട്ടികൾക്ക് തന്നെ ചോറു കൊടുക്കണമെങ്കിൽ അവര് ആകെ വാശിപിടിക്കുന്ന ഒരു കാര്യമാണ് ഫോൺ അതിനുള്ള മുന്നോട്ടുള്ള കുട്ടികൾ ആയാലും അങ്ങനെ തന്നെ അവർക്കു ഫോൺ ഫോൺ ഫോൺ അത് ഒരു വല്ലാത്ത ഒരു ഇതുതന്നെയാണ് ഇപ്പം നമ്മള് പഠിക്കാൻ വേണ്ടി കൊടുത്ത ഒരു സാധനം ആ സമയത്ത് എല്ലാ കുട്ടികൾക്കായാലും എല്ലാ ആൾക്കാർക്കും പഠനത്തിനായാലും ടെൻഷൻ മാറ്റാനും അതിനും ഇതിനും എല്ലാ സഹായമായി ഒരു കാര്യം ഫോൺ തന്നെയാണ് പക്ഷേ അതൊരു ദോഷമായിട്ട് ഓരോ ആൾക്കാർക്കും സംഭവിച്ചിട്ടും ഉണ്ട് സംഭവിക്കാതിരുന്നിട്ടും ഉണ്ട് അപ്പോൾ എന്താണ് നമ്മള് രണ്ട് സല്ല നമ്മള് ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണവും ദോഷത്തെയും മനസ്സിലാക്കി വേണം നമ്മള് എപ്പോഴും ചിന്തിക്കാന് ഉള്ളത് ഇപ്പോൾ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യവും എന്താണ് നമ്മള് വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും ആ രീതിക്ക് തന്നെ നടപ്പാക്കണം അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഓരോ കാര്യത്തിനും അതിന്റേതായിട്ടുള്ള ഒരു വാല്യൂ കൊടുത്ത് അതിനെ മനസ്സിലാക്കി എല്ലാം രീതിയിലും അതിനെ മനസ്സിലാക്കി മുന്നോട്ടു പോകുക ഇതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും